ഞാനിവിടെ പാലക്കാട് നടന്നൊരു എക്സ്പോ സന്ദർശിച്ചിട്ടുണ്ട് നല്ല നല്ല ചിത്രങ്ങൾ പണ്ടത്തെ കലാകാരന്മാരുടെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഒരു എക്സ്പോ സന്ദർശിച്ചിട്ടുണ്ട് ഭയങ്കര മനോഹരമായിട്ടുള്ള അതിൻ്റെ ഓരോ ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ ശരിക്കും ജീവനുണ്ടെന്ന് തോന്നുന്ന തരം ചിത്രങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് എന്തോ ശരിക്കും നല്ല ഒരു അനുഭവമായിരുന്നു എന്നാൽ കണ്ടപ്പോൾ നമ്മൾ വരക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ വരക്കാൻ താത്പര്യം ഇല്ലാത്തവരെ പോലും വരക്കാൻ ആഗ്രഹിപ്പിക്കുന്ന ഒരു ഇതിലുള്ള ചിത്രങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനൊക്കെ അത് കണ്ടിട്ട് ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെയും മനുഷ്യനെ വരക്കാൻ അറിയാം അല്ലെങ്കിൽ ഇങ്ങനെയും വരക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ ശരിക്കും ജീവനുള്ളതുപോലെ നമുക്ക് തോന്നും ആ ഉള്ള ചിത്രങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞാൽ അതുപോലെ പണ്ടത്തെ കഥകൾ കഥകളികൾ അതുപോലെ തന്നെ പണ്ടത്തെ ഓരോ വരയിലെ രീതികൾ അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും നമ്മുടെ ഇന്നത്തെ രീതിലുള്ള മോഡേൺ കൾച്ചറിൽ ആർട്ടാണെങ്കിലും അതിലുള്ള ഒരുപാട് കലകൾ എന്തു ചെയ്തിട്ടുണ്ടാകും അവരത് വരച്ച് അതൊരു ചിത്രമാക്കി വരച്ചിട്ടുണ്ട് അങ്ങനെയൊരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഇനി തൃശ്ശൂർ വെച്ചിട്ട് നടക്കുന്നുണ്ട് അടുത്ത മാസം വെച്ചിട്ടൊരു എക്സ്പോ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉടനെ നടക്കേണ്ട ഒരു എക്സ്പോ ആണ് അത് അതിലെനിക്ക് പങ്കെടുക്കണമെന്നുണ്ട് കാരണം ഇതിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് കലാകാരന്മാർ പങ്കെടുത്തിട്ടുള്ള ഒരു എക്സ്പോ ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഭാഗമാകാൻ കൂടുതലാഗ്രഹിക്കുന്നുണ്ട് കാരണം അവിടെ പോയി കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ നമ്മളൊന്നും ഒന്നും അല്ലയെന്നുള്ളത് കുറേ കാര്യങ്ങൾ വരക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കും അവർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു ക്ലാസും നമുക്ക് അവർ തരുമായിരിക്കും അപ്പം അതിനു പോയി പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുമെന്നൊന്നും അറിയില്ല പക്ഷെ ആഗ്രഹം ഉണ്ട് പോകണമെന്ന് പറ്റുമെങ്കിൽ അവിടെ പോയി പങ്കെടുത്തു അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്നാണ് നമ്മുടെ ജീവിതത്തിലെ കല അല്ലെങ്കിൽ നമ്മുടെ ഉള്ള കണക്കിന് ഇതൊക്കെ തന്നെ നമുക്ക് അവസാനം വരെ ഉണ്ടാകുകയുളളൂ അപ്പം അതും നല്ല രീതിയിൽ എന്തു ചെയുക കൊണ്ട് പോകാനാണ് ഞാനിപ്പോൾ എന്തു ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത്